ജോലിസ്ഥലത്തെ സങ്കർഷങ്ങളും പ്രയാസം ഉണ്ടായ സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് അതായത് മനുഷ്യരുടെ ജീവിതം എല്ലായിപ്പോഴും സുഖകരവും സന്തോഷകരവും മാത്രമായിരിക്കില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ഒരു ദുഃഖവും കാണും മാക്സിമം നമുക്ക് പറ്റുന്ന നമുക്ക് ഉണ്ടാകുന്ന സങ്കർഷങ്ങളും പ്രയാസങ്ങളും ഒന്നും മറ്റൊരാളെ ബാധിക്കാതിരിക്കുക നമ്മുടെ ദേഷ്യവും നമ്മുടെ സങ്കടമൊന്നും മറ്റൊരാളെ അറിയിക്കാതിരിക്കുക സ്വന്തമായി ചെയ്യുക എന്നതാണ് സ്വന്തമായി അതെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് വലിയൊരു കാര്യം പിന്നെ റിലാക്സ് ആകാൻ നമുക്കെന്താണോ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പാട്ടു കേൾക്കുകയോ കവിത എഴുതുകയോ അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക